ആ സമയത്ത് നമ്മൾ കുറേ പേടിച്ചൊരു കാലഘട്ടമാണല്ലൊ കൊറോണ ആ സമയത്ത് പിന്നെ പുറത്തു കറങ്ങാനോ ഒന്നു പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കാരണം സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത വരിക പത്രങ്ങളിൽ വരിക അവിടെ കൊറോണ ഇവിടെ കൊറോണയെന്നു പറയുമ്പോൾത്തന്നെ നമ്മൾ നല്ലവണ്ണം വൃത്തിയും വെടുപ്പും കുറച്ചും കൂടി കൂട് കൂടുതലെടുക്കും കൈ കഴുകലും അതുപോലെ തന്നെ പാത്രം കഴുകലും അതുപോലെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയിട്ടും തണുത്തതൊന്നും കഴിക്കാതെ നല്ല രീതിയിലന്നേയ്നു നോക്കിയിരുന്നു പിന്നെ മാസ്ക്ക് പുറത്തു പോകുമ്പോൾ മാസ്ക്ക് ധരിച്ചിട്ടും പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടും പിന്നെ നമ്മൾ എന്താ പറയുക ഏതു സമയത്ത് ചിലപ്പം രണ്ടു നേരമൊക്കെ കുളിക്കും നല്ല വൃത്തിയിലും ഡ്രസ്സും അതു പോലെ മഞ്ഞൾ വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളം അതുപോലെ എന്താ പറയുക തുളസി വെള്ളം ഒക്കെ നോ നല്ല നോക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചും ആ സമയത്തു ഞങ്ങൾ സംരക്ഷിച്ചതു വെച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാനും കുട്ടികളും ഹസ്ബൻറ്റും ഞങ്ങളുടെ കുടുംബം എന്നു പറയണത് ഞങ്ങൾക്ക് പ്രധിരോധ ശേഷിയാണല്ലൊ നമുക്കാ സമയത്ത് വേണ്ടത് ആ പ്രധിരോധ ശേഷിക്കുള്ള ഉത്പന്നം നമ്മുടെ കൈയിലുള്ളതു കൊണ്ടു തന്നെ മറ്റുള്ള ആളുകളെപ്പോലെ ആ സമയത്തു ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല കൊറോണേന്റെ ചെറ് ചെറിയ ലക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽപ്പോലും നമ്മുടെ കൈയിലുള്ള ആ ഒരുല്പന്നങ്ങൾ കൊണ്ടു തന്നെ കഴിച്ചിട്ട് നമ്മളാ ശരീരത്തിനെ സംരക്ഷിച്ചൂ എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ കാണും ബുദ്ധിമുട്ടും ആമ്പുലൻസുകാർ പോണതും കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഹെൽത്ത് സംരക്ഷിക്കാനാണ് നോക്കിയത് ആ ഒരു പ്രൊഡക്റ്റിലൂടെ ആയുർവേദത്തിന്റെ ആ ഒരു എല്ലാ ഇങ്ക്രീഡിയൻസും ഒത്തിണങ്ങിയിട്ടുള്ള ഉത്പന്നമാണ് അപ്പം അതു കൊണ്ടു തന്നെ അതു കഴിച്ചു കൊണ്ട് മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പോലത്തുള്ള ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ അതു നല്ല രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു എന്നാലും വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി പലപ്പോഴും പല ആളികൾക്കത് കൊടുക്കാനും മറ്റുള്ളവരുടെ സംരക്ഷണത്തിനൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും അതുപോലെതന്നെ ഹസ്ബൻറ്റിനാണെങ്കിലും അപ്പം നമ്മളീ ഉത്പന്നത്തിലൂടെ തന്നെയും പിന്നെ അങ്ങനെ നല്ലവണ്ണം നോക്കിയിട്ടുണ്ടാ കൊറോണ സമയത്തൊക്കെയും പിന്നെ ബുദ്ധിമുട്ട് പറയാനൊന്നും ആ സമയത്ത് വന്നിട്ടില്ല മറ്റുള്ള അവസ്ഥ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങളാ സമയം നല്ല രീതിയിലാണ് കൊറോണ സമയത്ത് എന്താ പറയുക ഞങ്ങളാ സമയം കടന്നു പോയത്